ഹലോ ആ കേൾക്കുന്നുണ്ട് പറഞ്ഞുകൊള്ളൂ ഓക്കേ അഭിനവ് അഭിനവ് എവിടെ നിന്നാണ് വിളിക്കുന്നത് ബാങ്ക്ളൂരില് നിന്നാണ് ഓക്കെ

ഓക്കെ നിങ്ങള് ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട് പ്ളേയ്സ് ഏതൊക്കെയാണെന്നുള്ളത് അല്ലേ

ഓക്കേ കുഴപ്പമില്ല ഞാനെൻറ്റെ എന്റെ പേര് ലിബിൻ ഓക്കേ ഞാൻ മേയ്നായിട്ട് വൈൽഡ് ലൈഫ് ആണ് മേയ്നായിട്ട് ട്രെക്കിങ്ങിന് പോകുന്നത് ഓക്കേ കൂട്ടിയിട്ട് പോകുന്നത് അതെ വൈൽഡ് ലൈഫാണ് ഇപ്പോള് നിങ്ങള് പറഞ്ഞ എല്ലാ പ്ളേയ്സും ഞാൻ ഓൾറെഡി ഗൈഡായിട്ട് പോകുന്നതാണ് പക്ഷേ വൈൽഡ് ലൈഫ് മാത്രമല്ല പുറത്തുനിന്ന് ഞാൻ ഗൈഡായിട്ട് പോകുന്നതാണ് ഇപ്പോള് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നിങ്ങള് എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് ഓക്കേ സ്റ്റേ എന്തെങ്കിലും നിങ്ങള് നോക്കിയിട്ടുണ്ടോ വയനാട്ടില് അങ്ങനെയാണ് ഓക്കേ അപ്പോള് നമ്മള് തന്നെ എല്ലാം പ്ലാൻ ചെയ്യണമല്ലേ ഓക്കേ ഓക്കെ അങ്ങനെയാണെങ്കില് നിങ്ങള് പറയുന്നതുവെച്ച് നോക്കുമ്പോള് നമുക്ക് ഏകദേശം പനമരം എന്നൊരു ടൗണുണ്ട് സെൻറ്ററായിട്ടാണ് വരിക അവിടെയായിട്ട് നമുക്കൊരു റൂമും ഫുഡ്ഡ് ആന്ഡ് അക്കമഡേഷനും എല്ലാം നമുക്കവിടെ റെഡിയാക്കാം അങ്ങനെയാണെങ്കില് നിങ്ങള് പറഞ്ഞതുപോലെ കുറുമ്പാലക്കോട്ട അതുപോലെ ബാണാസുരസാഗര് ഇങ്ങോട്ടെല്ലാം പാസ്സ് ചെയ്യണമെങ്കില് ഏകദേശം സെൻറ്ററായിട്ടാണ് ഇത് വരിക നമുക്കെവിടെ പോയിട്ട് വേണമെങ്കിലും കറക്റ്റ് വന്നിട്ട് സ്റ്റേ ചെയ്യാവുന്നതാണ് ഓക്കേ അതെ അവിടെയായിട്ട് നമുക്ക് റൂം വേണമെങ്കില് റെഡിയാക്കാവുന്നതാണ് അവിടെത്തന്നെ ഫുഡ്ഡ് ആന്ഡ് അക്കമഡേഷനുണ്ട് ഡോർമെറ്ററി വേണമെങ്കില് ഡോർമെട്രി അവൈലബിളാണ് റൂംസാണെങ്കില് അങ്ങനെയും കിട്ടുന്നതായിരിക്കും ഇപ്പം കുറുമ്പാലക്കോട്ടയാണെങ്കില് നമുക്ക് നല്ലൊരു വ്യൂ വ്യൂവാണ് ഇപ്പോള് അത്യാവശ്യം ഫോഗെല്ലാമുള്ളതുകൊണ്ട് രാവിലെ ചെല്ലുകയാണെങ്കില് നല്ല വ്യൂ സൈറ്റും കൂടിയാണ് ഫോട്ടോഗ്രാഫി പ്ളേയ്സാണ് ഓക്കേ റേയ്റ്റ് എങ്ങനെയാണ് നിങ്ങളുദ്ദേശിക്കുന്നത് പെർ ഡേയാണോ പെർ ഡേ എനിക്കൊരു ടൂ തൗസൻറ്റ് ഫൈവ് ഹൺഡ്രഡാണ് എൻറ്റെ റേയ്റ്റ് വരുന്നത് അതെ പെർ ഡേ ടൂ തൗസൻറ്റ് ഫൈവ് ഹൺഡ്രഡാണ് വരുന്നത് ഓക്കേ അത് നിങ്ങള് ഇപ്പോള് ഫുള് ഒരു പാക്കേജായിട്ട് ചെയ്യുകയാണെങ്കില് എനിക്ക് അങ്ങനെ ഒരെമൗണ്ട് മതിയാകും കാരണം അതില് ഫുഡ്ഡ് നിങ്ങളുടെ അക്കമഡേഷൻ എല്ലാ ഗൈഡ്ലൈൻസും ഇതെല്ലാം വരും അല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പോള് എൻറ്റെ മാത്രമായിട്ട് നോക്കുകയാണെങ്കില് നിങ്ങള്ക്ക് അതൊരു ഹ്യൂജ് എമൗണ്ടായിട്ട് വരുന്നതായിരിക്കും അതേസമയം ഇപ്പോള് ഞാൻ മാത്രമായിരിക്കില്ല ഇപ്പം വൈൽഡ് ലൈഫായിട്ട് നിങ്ങള്ക്കിപ്പോള് ട്രെക്കിങ്ങിന് പോകണമെങ്കില്ത്തന്നെ നമുക്ക് ഫോറെസ്റ്റിൻറ്റേത് ആയിട്ടുള്ള ഒരു ഗാഡും കൂടിയുണ്ടാകും അപ്പോള് അവരുടെ പേമെൻറ്റ് നിങ്ങള് സപ്പറേറ്റായിട്ട് അടയ്ക്കേണ്ടി വരും അതേസമയം ഒരു പാക്കേജ് പോലെ അതെ അതെ ഒരു പാക്കേജ് പോലെ വേണമെങ്കില് ഞാൻ ചെയ്തുതരാവുന്നതാണ് അങ്ങനെയാകുമ്പോള് നിങ്ങള്ക്ക് അതെല്ലാം ഇംഗ്ലൂഡഡായിരിക്കും അതില് മൊത്തത്തിലൊരു ഇത് വരും അല്ലെങ്കില് സപ്റേറ്റ് സപ്റേറ്റായിട്ട് നിങ്ങള് തന്നെ കൊടുത്താലും മതി വേറെ ഇഷ്യൂ ഒന്നും വരുന്നതായിരിക്കില്ല നിങ്ങള് ഡയറക്റ്റ് പേമെൻറ്റ് ചെയ്താല് മതിയാകും ഓക്കേ എൻറ്റെ പേമെൻറ്റ് ഒരു ദിവസത്തേക്ക് പെർ ഡേ ടൂ തൗസൻറ്റ് ഫൈവ് ഹണ്ട്രഡാണ് വരുന്നത്

ഓക്കേ നിങ്ങള് ഫ്രണ്ട്സുമായിട്ട് ഡിസൈഡ് ചെയ്താല് മതി അതെ ഇതെൻറ്റെ നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചാല് മതി ഇത് ട്വൻറ്റി ഫോര് ഹവേഴ്സ്സ് അവൈലബിളായിരിക്കും കുഴപ്പമില്ല നിങ്ങള്ക്കേത് ടൈം വേണമെങ്കിലും വിളിക്കാവുന്നതാണ് കാരണം ഞാൻ ഓൾറെഡി വർക്കിങ്ങിലാണ് ഇപ്പോള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്

ആ ഓക്കെ നോ പ്രോബ്ലം ഓക്കേ